വേനൽക്കാലത്തും മഴക്കാലത്തും ത തണുപ്പിലുമൊക്കെ ചെടികൾക്ക് പ്രത്യേകമായിട്ട് സംരക്ഷണം നൽകേണ്ടതുണ്ട് അതായത് അത് മര്യാദയ്ക്ക് അറിയുന്നത് അതായത് ഈ ഗാർഡനിങ്ങ് എല്ലാം ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ചെടികളെ മര്യാദയ്ക്ക് സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പിന്നെ ഇങ്ങനെ രീതിയിൽ നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ മാത്രമേ ചെടികൾക്ക് എന്ത് മുന്നോട്ടേക്കുള്ള വളർച്ച സാധ്യമാകൂ ചില ചെടികൾക്ക് വേനൽകാലത്ത് നന്നായിട്ട് വെള്ളം ആവശ്യം വേണ്ടി വരും മൂന്ന് നേരം വെള്ളം നനച്ച് കൊടുക്കേണ്ട ആവശ്യകത ഉണ്ട് എന്നാൽ മാത്രമേ ആ ചെടികൾ വാടി പോകാണ്ട് നിൽക്കൂ അതേ സ്ഥാനത്ത് മഴക്കാലമായി കഴിഞ്ഞാൽ അധികം മഴ കൊള്ളിക്കാത്ത ചെടികളുണ്ട് മഴ കൊള്ളിക്കാത്ത ചെടികൾ എന്തെങ്കിലും ഷെൽട്ടറിൻ്റെ ഉള്ളിലായിട്ട് വയ്ക്കേണ്ടതുണ്ട് അതിനധികം അന്നേരം വെള്ളം ആവശ്യം ഇല്ല പോപ്പി പോപ്പി എല്ലാം മഴക്കാലത്ത് അധികം വെള്ളം നനച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ട് ചീഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് അതേപോലെ തന്നെ യൂഫോബിയ അങ്ങനെയുള്ള പല ചെടികളും ഉണ്ട് ന്യൂഫോബിയയ്ക്ക് അല്ലെങ്കിലും നല്ല വേനലാണാവശ്യം തണുപ്പ് അധികം പറ്റില്ല യൂഫോബിയയ്ക്ക് തണുപ്പിനത് മാറ്റി നിർത്തേണ്ട ആവശ്യം ഉണ്ട് അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് പ്രത്യേക രീതിയിൽ തന്നെ അതിനെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഒരേ സ്ഥലത്ത് തന്നെ വയ്ക്കാണ്ട് സ്ഥലം മാറ്റി കൊടുത്താലത് അതിന് തന്നെ ഒരിഷ്ടം തോന്നും ചെടികളോട് നമ്മൾ സംസാരിക്കുക ഒരു ഫ്രണ്ടിനെ പോലെ ചെടികളെ കണ്ടിട്ട് അതിനെ സംരക്ഷിച്ചാൽ അത് നന്നായിട്ട് വളരും